ആ ഉണ്ട് നിങ്ങൾ എത്രയാണ് ബജറ്റ് എത്ര സെൻ്റ് സ്ഥലം ഒക്കെ ഉദ്ദേശിക്കുന്നത് ഇവിടെയൊരു സ്ഥലമുണ്ട് കൊടുക്കാൻ അത് പതിനാല് സെന്റിലാണ് ഇരിക്കുന്നത് ഒരായിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഒരു വീടുണ്ട് വെള്ളവും കാര്യങ്ങളൊക്കെയുണ്ട് മെയിൻ റോഡ് സൈഡാണ് അൻപത് ലക്ഷം ആണ് അവർ പറയുന്നത് നിങ്ങടെ ബഡ്ജറ്റ് എത്രയാണ് അറുനൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് ആ അൻപത് മെയിൻ റോഡ് സൈഡ് തന്നെ ലൊക്കേഷൻ കൃത്യമായിട്ട് പറയാണെങ്കിൽ ആ മാനന്തവാടി നേരെ പൊരാണെങ്കിൽ താഴങ്ങാടി ആ ഭാഗത്തായിട്ടാണ് അ ആ അതേ അതെ അല്ല എത്ര എമൗണ്ടാണ് ഉദ്ദേശിക്കുന്നത് എത്ര എമൗണ്ടിൽ ഉള്ള ഒരു വീടാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിനനുസരിച്ച് ഉള്ളതു നോക്കാലോ ഓക്കേ ഓക്കേ അങ്ങനെയുള്ള ഒരു വീടുണ്ട് അപ്പോൾ നമുക്ക് അത് നോക്കാം ആ ആയിക്കോട്ടെ അ ആ ഓക്കെ ഓക്കേ അപ്പം നമ്മുടെ അടുത്തുള്ളത് നോക്കിയിട്ട് ഞാൻ പറയാം രണ്ടുമൂന്നു സ്ഥലമുണ്ടങ്ങനെ അപ്പം അത് നോക്കിയിട്ട് പിന്നെ ഞാൻ പറയാം എന്തായാലും അപ്പം ഒരു രണ്ട് സ്ഥലമുണ്ട് അതൊരു പത്ത് സെൻറ് സ്ഥലത്താണ് കിടക്കുന്നത് രണ്ട് നില വീട് അതൊരു ഇരുപത്തഞ്ച് ലക്ഷം ഉണ്ടെങ്കിൽ അവരു കൊടുക്കും പക്ഷേ അവിടെ റോഡ് സൈഡല്ല ഉള്ളിലോട്ടാണുള്ളത് ആ അങ്ങനെയുണ്ട് നമുക്കെസ്ട്രാ പിന്നേ ഭാവിയിലോട്ട് നമുക്കടുത്തതുള്ള സ്ഥലം വിൽക്കുവാണെങ്കിൽ നമുക്കെസ്ട്രാ കൂട്ടിയെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ റോഡ് സൈഡ് മെയിൻ റോഡ് സൈഡാവുമ്പോൾ നമുക്ക് സെന്റിന് എങ്ങനെയായാലും ഒന്നര രണ്ട് ലക്ഷം രൂപ വരുന്നുണ്ടല്ലോ ഉള്ളിലോട്ടാവുമ്പോൾ നമുക്ക് ഒരു അര ഏക്കർ സ്ഥലോം ഒരു ഒരു വാർപ്പ് ഒരു നില വാർപ്പൂ വീടൊക്കെയാണെങ്കിൽ ഓക്കെയാണ്

ഓക്കേ ഓക്കേ നോക്കിട്ട് ഞാൻ വിളിക്കാട്ടോ ആയിക്കോട്ടെ വിളിക്കാട്ടോ ആയിക്കോട്ടെ